ഓൺലൈനായിട്ട് ചുരിദാര് ചുരിദാർ വാങ്ങി ചുരിദാര് വാങ്ങിയിട്ട് അത് പിന്നെ വിചാരിച്ച പോലെ ആയില്ല ലൂസായിരുന്നു പിന്നെ നല്ല ലൂസായിരുന്നു കാലൊക്കെ പാൻറ്റ് ചുരിദാറിൻറ്റെ കാല് പിന്നെ നല്ല ചെറിയതായിരുന്നു പിന്നെയത്

ആ കളറ് ഒന്ന് നനച്ചപ്പോളത് കളറ് നല്ലോം പോയിരുന്നു പിന്നെ അത് ഒരു കല്യാണ വീട്ടിലേക്ക് ഇട്ടപ്പോള് ആ ചുരിദാര് കണ്ടിട്ട് ചോദിച്ചു ഇതെല്ല എത്രയെന്ന് ചോദിച്ചപ്പോള് ആയിരം രൂപയെന്നു പറഞ്ഞു ഇത് ഇത്രയും ഒന്നുമില്ല ആയിരം രൂപയ്ക്കൊന്നുമില്ല ഒരു അറുന്നൂറ് അഞ്ഞൂറ് രൂപയ്ക്ക്ള്ള ഒള്ളതൊള്ളൂന്ന് പറഞ്ഞു അത്രയ്ക്കു മോശായിരുന്നു ആ ചുരിദാര് വിചാരിച്ച പോലെ ആയില്ല കളറും മാറിയിരുന്നു പിന്നെ അത്രയ്ക്കും മോശമായിരുന്നു പിന്നെ ചുരിദാറിൻറ്റെ കയ്യാണെങ്കിലും നല്ല ലൂസായിട്ടും കയ്യ് കയ്യൊക്കെ ആയിരുന്നു